അതെ ആ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്

ഫുഡ് കഴിക്കുമ്പഴും വേദന ഉണ്ടോ അപ്പോൾ വന്ന് കാണിക്കേണ്ടിവരും ഇപ്പം അത് കേടു തന്നെയാണോ ഉള്ളിലാണോന്നുള്ളത് നമുക്ക് എക്സ്സറേ എടുത്താലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എക്സ്സറെ എന്തായാലും എടുത്തുനോക്കണം എന്നാലേ ഉള്ളിലാണോ അതോ പുറമേ ഇങ്ങനെ കറുത്ത കളറും കാണുന്നുണ്ടോ നോക്കുമ്പോൾ അ അപ്പോൾ അത് ആ ഇപ്പോൾ ഒരു പല്ലിന് മാത്രമേ പ്രശ്നമുള്ളോ അതോ അതിനു മുന്നേ എന്തെലും റൂട്ട് കനാൽ ചെയ്തിട്ടുള്ളതാണോ ആണല്ലെ അപ്പോൾ അത് എക്സ്സറെ എടുത്ത് നോക്കിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അല്ല അതുമൊത്തത്തിൽ കേടുവന്നല്ലോ അപ്പോൾ അത് മൊത്തത്തിൽ എടുത്തുകളഞ്ഞിട്ട് ക്യാപ് ഇടേണ്ടി വരും കോഴ്സ് ഇത് പലറേറ്റിൻ്റെ ഉണ്ട് ഇപ്പോൾ മെറ്റലിൻ്റെ ഉണ്ട് അല്ലാത്തത് ഉണ്ട് അങ്ങനെ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും റേറ്റും കാര്യങ്ങളും ഒക്കെ മ് അപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് ടു ടൗൽ തൗസൻഡ് ആ ഒരു റേറ്റൊക്കെ ആയിരിക്കും ആ ഒരു പല്ലിനു മാത്രം അത് റൂട്ട് കനാലും ക്യാപ്പും കൂടെ എല്ലാം കൂടെ ആയിട്ടായിരിക്കും ആ അത്രയൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയുടേയും പതിനായിരം രൂപയുടേയും ഒക്കെ അതിപ്പോൾ പ്രായനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അത് നമ്മൾ തീരുമാനിക്കുന്നത് ഉം പിന്നെ ചില ക്യാപ് ഇടുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാൾ അധികം നാളൊന്നും നിൽക്കത്തില്ല അത് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോരാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും പേഷ്യൻസ് നോ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ അത് വന്ന് നോക്കേണ്ടി വരും ഡാമേജ് ആയോ ആ അപ്പോൾ അത്രയും നല്ല സാധനം ആയിരിക്കത്തില്ലായിരിക്കും മെറ്റലിൻ്റെയൊക്കെ ആണെങ്കിൽ മെറ്റല് നോൺ മെറ്റല് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നേയും കുഴപ്പം ഉണ്ടാകത്തില്ല ആ വന്ന് ആദ്യമേ എക്സ്റേ എടുത്ത് നോക്കി ഇപ്പോൾ ഉള്ളിലാണോ അതോ പുറമേ ആണോ കേടുള്ളത് എന്ന് നമ്മൾ ആദ്യം കൺഫോം ചെയ്തിട്ട്

ഉം അപ്പോൾ അത് ആ നീര് കുറഞ്ഞിട്ടൊക്കെയെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മ് ചിലർക്ക് നീരൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം പെയിൻ വരുന്നത് അങ്ങനെ കുറേ ക്യാറ്റഗറികളൊക്കെ ഉണ്ട് ഇപ്പോൾ നീരുള്ളതുകൊണ്ടിട്ട് നമുക്കെന്തായാലും പെയിൻ മാറിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉം

ഓക്കെ